ഹലോ ആ ഇത് ഫാമിൻ്റ ഓണർ അല്ലേ ചിക്കൻ ഫാമിൻ്റെ ആ സാറേ ഞാൻ പുതിയ ഒര് ഫാമ് തൊടങ്ങാൻ വേണ്ടീട്ടായിരുന്നേ നമുക്ക് അയിന് ഇപ്പം ഫസ്റ്റ് സ്റ്റേജ് തൊട്ട് എങ്ങനെയാ സംഭവങ്ങളെന്നൊക്കേ അറിയാൻ വേണ്ടീട്ടാണ് ആ നമ്മള് ഇപ്പം സ്ഥലം കാണിച്ചിട്ട് ഇത് ഇങ്ങനേ ഫാമിനാന്നും പറഞ്ഞിട്ട് ലോൺ പാസായിട്ടുണ്ട് അതേ അതേ അതേ നമ്മള പ്ലേസ് അങ്ങനെ കൊറച്ച് ഉള്ളിലേക്ക് കേറീട്ട് ഇണ്ട് തോട്ടത്തിൻ്റ അകത്താണ് ഇല്ലാ നമ്മളൊരു ആ നാലഞ്ച് എണ്ണം പ്ലാൻ ചെയ്തിട്ട് ഇണ്ട് അയിനുള്ള സ്ഥലവും ഇണ്ട് ഓക്കേ ആ ഓക്കേ ആ ആ വാങ്ങിക്കണംല്ലേ ആ ഓക്കേ ഓക്കേ ഈ നമുക്ക് അയിനാത്തേക്ക് വേണ്ട മെറ്റീരിയലും കാര്യങ്ങളൊക്കേ എവിടിന്നാ കിട്ടാന്നുള്ള ഡീറ്റെയിൽസൊക്കേ നിങ്ങക്ക് അറിയായിരിക്കല്ലൊല്ലേ അപ്പം നമുക്ക് അത് പറഞ്ഞ് തരുന്നതിനെ കുറിച്ച് ഓക്കേ ഓക്കേ ആ ഓക്കേ ആ അതൊക്കേ നമ്മള് ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ ഓൾമോസ്റ്റ് ഇപ്പോ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കേ ആണ് അറിയേണ്ടത് നമ്മള് കരണ്ടിൻ്റ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നേ മറ്റേ ഇതിന് വേണ്ട സാധനങ്ങളൊക്കേ എവിടിന്നാ കിട്ടാന്ന് അറിയാൻ വേണ്ടീട്ടാണ് ഞാൻ കോൺടാക്ട് ചെയ്തത് ആ ഓക്കേ

ഓക്കേ ഇത് ഇത്രയും അതൊന്ന് വാട്ട്സ്ആപ്പ് ചെയ്താമതി ആയിക്കോട്ടെ ആ വിളിക്കാ